ഹലോ ഇവൻറ്റ് മാനേജ്മെൻറ്റായിരുന്നു ആരായിരുന്നു അതെ പറഞ്ഞോളു ആണ് എപ്പോളാണ് കല്യാണം ഈ മാസം ലാസ്റ്റ് അല്ലെ ഓക്കെ സർ വധുവിൻ്റെ വീട്ടുകാരാണോ ചെക്കൻ്റെ വീട്ടുകാരാണോ ചെക്കൻ്റെ വീട്ടുകാരാണ് എവിടെയാണ് സ്ഥലം പനോലി കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയുമൊ സർ ഓക്കെ സർ പറഞ്ഞോളു

വായനശാല ഓക്കെ കാട്ടികുളത്ത് എത്തണോ സർ ഓക്കെ സർ അപ്പൊൾ ഈ ഫുഡും നമ്മൾ തന്നെ ചെയ്യണോ ഫുഡും അതെ ഫുഡും മറ്റേ കെട്ടണ സ്ഥലമില്ലെ അതൊക്കെ എല്ലാംകൂടെ കൂട്ടി ഞങ്ങള് വൺ ലാക്കാണ് മേടിക്കുന്നത് പിന്നെ വരനെ ഒരുക്കണോ ഓക്കെ ഓക്കെ സർ ഞാങ്ങളപ്പമൊരു ഒന്നര പറയാം അല്ല ഇതുംകൂടെ എല്ലാം കൂട്ടി ഒന്നര ഒന്നര ലക്ഷം രൂപയാണ് സർ അത് ബൊഫെ പോലെയാണ് പക്ഷെ നിങ്ങക്ക് ഇഷ്ടള്ള ഭക്ഷണമേ ഞങ്ങള് വിളമ്പുകയുള്ളൂ അതിൻ്റെ ലിസ്റ്റ് തന്നാൽ മതി ആ അത് ആലോചിച്ചിട്ട് വിളിച്ചാൽ മതി ഓക്കെ അപ്പൊൾ ഞങ്ങള് ട്രാവൽസുണ്ട് ട്രാവൽസുണ്ട് ഞങ്ങളുടെ ഇതിന് തന്നെ അതിന് പക്ഷെ എക്സ്ട്രാ ചാർജിങ്ങാട്ടോ സർ ആ ഓക്കെ അതെത്ര ബസുണ്ട് എത്ര വേണം നിങ്ങൾക്ക് എത്ര സീറ്റിൻ്റെ ആണ് സർ നാപ്പത്തി അല്ല അറുപത്തി നാലിൻ്റെ ആണോ ഓക്കെ അപ്പൊൾ അത് ഞാൻ വാട്സാപ്പില് ലിസ്റ്റ് ഫുൾ അയക്കാം സർ ഈ നമ്പറല്ലേ

ബസ് ഞങ്ങളുടെ തന്നെ ഉണ്ട് സർ എസ്ട്രോഫ് ഹോളിഡേയ്സ്ന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ഒരു നാളെ നാളെ എപ്പഴാന്ന് വെച്ചാൽ മാനന്തവാടി വന്നാൽ മതി ഞങ്ങളുടെ ഓഫീസില് വന്നാൽ മതി

ആ ഓക്കെ ടാങ്ക്യു സർ